എൻ്റെ വീട്ടിൽ ധാരാളം പൂക്കളുണ്ട് വിവിധ തരത്തിലുള്ള പൂക്കളുണ്ട് ചെമ്പരത്തി തന്നെ ഒരു ഇരുപത്തി അഞ്ച് ഇനം ചെമ്പരത്തികള് ഉണ്ട് അതിൽ അതേപോലെ ഈ പൂക്കളെല്ലാം ഞാൻ അമ്പലത്തിൽ കൊണ്ട് പോയി കൊടുക്കും അല്ലങ്കിൽ അടുത്ത വീടുകളിലേക്ക് ആവശ്യമായ പൂക്കളൊക്കെ എൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ട് പോവാറുള്ളത് കുറേ പൂക്കൾ ഞാൻ ചെടിയിൽ നിൽക്കും അതിൽ നിന്ന് ചിത്രശലഭങ്ങളും വണ്ടുകളെല്ലാം വന്ന് തേൻ കുടിക്കും അത് എനിക്ക് ആസ്വദിക്കുന്നത് നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എൻ്റെ ജോലി എനിക്ക് ഇഷ്ട്ടപ്പെട്ടൊരു ഹോബി തന്നെയാണ് ഗാർഡനിങ്ങ് ആ ഗാർഡനിങ്ങ് അതേപോലെ പച്ചക്കറികള് പഴങ്ങളെല്ലാം ഉണ്ടാക്കുക എന്നുള്ളത് പഴങ്ങൾ ധാരാളം പഴങ്ങൾ ഫ്രൂട്ടി അടക്കം എൻ്റെ വീട്ടിലുണ്ട് അതിൽ നിന്ന് ഞാൻ ജ്യൂസ് ഫ്രൂട്ടി ധാരാളം പറിച്ച് ജ്യൂസടിക്കും എൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് ഞാൻ വെറുതെ കൊടുക്കുകയാണ് പതിവ് ഫ്രൂട്ടിയിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കും ഞാൻ പിന്നെ ജാം ഉണ്ടാക്കും പിന്നെ ധാരാളം പഴങ്ങളും പച്ചക്കറികളും എല്ലാം എല്ലാവർക്കും കൊടുക്കുന്നൊരു ശീലമുണ്ടെനിക്ക്